ആദ്യമായിട്ട് ഞങ്ങളുടെ പ്രദേശത്തൊരു ഡാൻസ് പഠിപ്പിക്കുന്ന സാർ വന്നു അപ്പം പിള്ളേർ ഒക്കെ ഡാൻസ് പഠിക്കാൻ പോവണം എന്ന് പറഞ്ഞു അപ്പം ഞാനും പോയി എന്നെയും വിട്ടു വീട്ടിൽ നിന്ന് അത് ഞാൻ ഒരു തുടക്കം മാത്രം എന്നുള്ള രീതിയിൽ ഞാൻ പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും ആ സാർ അവിടുന്ന് പോയി ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചിലങ്കയുടേയും ആ മാസത്തെ ട്യൂഷൻ ഫീസും അങ്ങനെ എല്ലാ സാധനവും മേടിച്ചിട്ട് സാർ പോയി പക്ഷേ അങ്ങനെ ഡാൻസ് കളിക്കാതെ ഇരിക്കുവായിരുന്നു പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ നടപ്പും എടുപ്പും എല്ലാം കണ്ട് എപ്പോഴും ഒരു ഡാൻസ് കളിച്ച രീതിയിലായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ വീട്ടിൽ ചെന്ന് ചോറുണ്ടിട്ട് വീട്ടിലോട്ട് സ്കൂളിലോട്ട് ചെന്നപ്പോഴത്തേനും എന്നെ ടീച്ചർ വിളിച്ചു ലിജി ഡാൻസ് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഡാൻസ് കുറച്ച് നാൾ പഠിച്ചു ടീച്ചറേ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ പഠിച്ചില്ല അന്നേരം പറഞ്ഞു ഒരു കാര്യം ചെയ്യ് ഇന്ന് വൈകിട്ട് ഇവിടെ നിൽക്കണേ ഇവിടെ നാല് മണിക്ക് സ്കൂളിൽ ഒരു സാർ ഡാൻസ് പഠിപ്പിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ വീട്ടിൽ ചോദിച്ചൊന്നുമില്ല അത് സാരമില്ല ഇവിടെ നിൽക്ക് ഇന്നൊരു ദിവസം നിൽക്ക് എന്നിട്ട് വീട്ടിൽ ചോദിച്ച് അത് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒരു ഡിസ്ട്രിക്ട് മീറ്റ് അല്ല ജില്ലാ തലത്തിൽ കളിക്കാൻ വേണ്ടി പോയതാണ് പഠിപ്പിക്കുവായിരുന്നു എന്തായാലും ഞാൻ നിന്നു ഞാൻ നന്നായിട്ട് കളിക്കുവായിരുന്നു എൻ്റെ ഡാൻസ് കണ്ടിട്ട് സാറിന് ഭയങ്കര ഇഷ്ടമായി സാർ പറഞ്ഞു ഇവൾ നന്നായിട്ട് കളിക്കും ഇവളെ ക്ലാസ്സിന് ഡാൻസിന് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു കയറ്റണമെന്ന് പറഞ്ഞു അപ്പം പക്ഷേ ഞാൻ ആ ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഒരു പ്രാവശ്യം പണ്ടെന്ന് വെച്ചാൽ ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു അന്ന് ആ സാറിന് പൈസ ഒക്കെ കൊടുത്ത് ഞങ്ങൾ അരങ്ങേറി എന്ന് പോലും പറയാൻ പറ്റില്ല ഞാൻ അതിന് മുമ്പേ സാർ ഇങ്ങനെ പൈസ ഒക്കെ കൊണ്ട് പോയി പക്ഷേ എങ്കിൽ ഇങ്ങനെ ഈ ടീച്ചർ വിളിച്ച് ഡാൻസ് കളിക്കാൻ തുടങ്ങിയപ്പം തൊട്ട് ഞാൻ നന്നായിട്ട് ഡാൻസ് കളിക്കും കാരണം എൻ്റെ കയ്യും കാലും എൻ്റെ കണ്ണും എൻ്റെ ചിരിയും എല്ലാ ആ ഡാൻസിന് ഒപ്പിച്ച് നടക്കുന്നതാണെന്നും പറഞ്ഞ് ഞങ്ങളുടെ സാർ എന്നെ ഒത്തിരി ആ ഡാൻസ് സാർ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചു അതിലൂടെ ഞാൻ ഇങ്ങനെ പിന്നെയും പിന്നെയും മുകളിലോട്ട് കയറി വന്ന് കാരണം ഞങ്ങളുടെ സ്കൂളിൽ എന്ത് ഒരു പരുപാടി നടന്നാലും ആനിവേഴ്സറിക്കോ പിന്നെ ഞാൻ ഈ ഡാൻസ് കളിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് ഞാൻ എൻ്റെ സ്കൂൾ ജീവിതം അവസാനിക്കുന്നിടം വരെ എൻ്റെ സ്കൂളിലെ പരിപാടിക്ക് ഡാ എൻ്റെ ഡാൻസ് ഇല്ലാത്ത പരിപാടി ഇല്ലായിരുന്നു കാരണം ഞാൻ അതുപോലെ കാരണം എൻ്റെ ദേഹവും എല്ലാം അതുപോലെ വഴങ്ങും എന്നും പറഞ്ഞ് സാർ ഭയങ്കരമായിട്ട് നല്ല പ്രോത്സാഹനം അപ്പോൾ എൻ്റെ വീട്ടുകാർ എനിക്ക് എൻ എത്ര രൂപ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും തന്ന് എന്നെ ആ ഡാൻസിന് വേണ്ടി എന്നെ ഒരുക്കും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും എത്ര നേരം വേണമെങ്കിലും എന്നെ അതിന് വേണ്ടി അവർ മെനക്കെട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു നാട്ടുകാരും അതുപോലെ തന്നെ വീട്ടുകാരും അതുപോലെ നാട്ടുകാരും നാട്ടുകാരായാലും എൻ്റെ ഡാൻസ് കാണുമ്പം പറയും നീ നന്നായിട്ട് കളിക്കും നീ ഇനിയും നന്നായിട്ട് ഉയരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കും അല്ലാണ്ട് പ്രോത്സാഹനം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉയർച്ചയ്ക്ക് കാരണം അപ്പം ഞാനാ ഇപ്പം ആയാലും ഞാൻ പിള്ളേർ കളിക്കുമ്പോൾ ഇതുപോലെ ഞാൻ ഡാൻസ് കളിക്കുന്നത് കാണുമ്പം ഞാൻ പറയും മോളേ ഇത്തിരി കൂടെ ചിരിച്ച് കളിക്ക് അല്ലെങ്കിൽ ആ കൈ പോകുന്ന സ്ഥലത്തോട്ട് കണ്ണ് നോക്കണം എങ്കിലൊക്കെയാണ് ആ ഡാൻസിന് ചിരിച്ചുകൊണ്ട് ഡാൻസ് കളിച്ചാലേ ആ ഡാൻസിനൊരു ഭംഗി ഉള്ളൂ അന്ന് എന്നൊക്കെ പറയും അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുക്കുകയും അങ്ങനെ ഒക്കെ ചെയ്യും എനിക്കത് കാരണം എനിക്ക് മറ്റുള്ളവരെ ഡാൻസ് പഠിപ്പിക്കാനും അത് ക ആ ഒരു ഡാൻസിലോട്ട് എല്ലാവരേയും എത്തിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഉള്ള ഓരോ കഴിവുകൾ ഉണ്ടെങ്കിൽ ആ പിള്ളേർ ഒക്കെ അങ്ങോട്ട് ഉയർത്തിക്കൊണ്ട് വരാനുള്ള ക എനിക്ക് ഇഷ്ടമാണ് ഞാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കും കാരണം എന്നെയും എല്ലാവരും പ്രോത്സാഹിപ്പിച്ചതുകൊണ്ടാണ് എനിക്ക് ഈ രീതി വരെ പ്രോ നല്ല രീതിയിൽ ഡാൻസ് കളിച്ച് ഉന്നതത്തിൽ എത്താൻ പറ്റിയത് കാരണം എന്നെ ഒരു ഒരു പ്രാവശ്യം ഞാൻ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ആ ഡാൻസിന് കയറിയിട്ട് ഞാൻ ആദ്യം കയറിയിട്ട് ഞാൻ ആദ്യത്തെ തന്നെ ആ സ്റ്റേജിൽ മത്സരത്തിന് ഫസ്റ്റ് പ്രൈസ് മേടിച്ചതുകൊണ്ടാണ് ഞങ്ങളുടെ ജില്ലാ തലത്തിൽ ഫസ്റ്റ് മേടിച്ചതുകൊണ്ടാണ് ഒന്നാം സമ്മാനം മേടിച്ചാണ് ഞാൻ ആ സ്റ്റേജിൽ നിന്ന് ആദ്യമായിട്ട് ഇറങ്ങുന്നത് അപ്പം പിന്നെ ഇത് എനിക്കത് അതും എനിക്ക് എപ്പോഴും ഒരു ഇതായിരുന്നു പ്രചോദനമായിരുന്നു കാരണം ഞാൻ ആദ്യം സ്റ്റേജിൽ നിന്ന് അരങ്ങേറുക എന്ന് പോലും ചെയ്തില്ല അതിന് മുമ്പേ പക്ഷേങ്കിൽ ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് എനിക്കൊരു ഫസ്റ്റ് ഒന്നാം സമ്മാനം കിട്ടുക എന്ന് പറഞ്ഞാൽ ജില്ലാ തലത്തിൽ ഒന്നാം സമ്മാനം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നല്ലൊരു അംഗീകാരം അല്ലേ എന്നെ സംബന്ധിച്ച് അത് അതേ കാരണം മറ്റുള്ളവർ ഇങ്ങനെ വീട്ടുകാർ ഒക്കെ ആയാലും എപ്പോഴും നല്ല രീതിയിൽ ആ അങ്ങനെ വേണം അങ്ങനെ എന്നെ വിടാനും അവർക്കൊരു മടിയും ഇല്ല എത്ര പൈസ ഇല്ലെന്ന് പറഞ്ഞാലും ശരി അവർ എന്ത് സാധനം വേണമെന്ന് പറഞ്ഞാലും ഡാൻസിന് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞാലും എനിക്ക് അന്നേരം എല്ലാം അത് മേടിച്ച് തന്ന് എന്നെ ഏത് ആ രീതിയിൽ എത്ര ഉയരാൻ പറ്റുമോ അത്രയും നേര് രീതിയിൽ തന്നെ ഉയർത്തി എനിക്കത് പോലെ ഡെൽഹിയിൽ ഒക്കെ ചെന്ന് ഞാൻ ഡാൻസ് ഒക്കെ കളിച്ചപ്പോഴും നഴ്സിങ്ങിൻ്റെ ഇതിന് പോയി ഡാൻസ് ഒക്കെ കളിച്ചപ്പോഴത്തേനും എനിക്ക് ആ അവരൊക്കെ എനിക്ക് ക്യാഷ് അവാർഡ് അങ്ങനെ ഒക്കെ തന്നു അതൊക്കെ എനിക്ക് ഒത്തിരി ഉപകാരവും പ്രയോജനവും ആയി തീർന്ന് അങ്ങനെ എൻ്റെ ഡാൻസിൻ്റെ ജീവിതം ഒന്നു പറഞ്ഞാൽ ഒത്തിരി നല്ല സന്തോഷം ജീവിതകാല ശരിക്കും അത് മറക്കാൻ പറ്റാത്ത ഒരനുഭവം പോലെ ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആ ഡാൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ പിന്നെ പിന്നെ ഇങ്ങനെ മുന്നോട്ട് അതിനോട് കൂടുതൽ ഇൻടറസ്റ്റ് ആക്കി കളിച്ച് കളിച്ച് വരുവായിരുന്നു അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ